ഹലോ ഇത് എയർലൈനിൻ്റെ പിന്നെ കസ്റ്റമർ കെയറല്ലേ ആ ഇത് വയനാട്ടിൽ നിന്നായിരുന്നു വിളിക്കുന്നത് സജിൽ എന്നാണ് പേര് അപ്പോൾ ഞാൻ ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത് ആ കോഴിക്കോടുനിന്ന് എറണാകുളം വരെയുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്തത് അപ്പോൾ പേര് ടൈപ്പ് ചെയ്തപ്പോൾ ഒന്ന് ചെറുതായിട്ട് മാറി പിന്നെ അതിൻ്റെ സ്പെല്ലിങ് മാറിപ്പോയിട്ടുണ്ട്

അപ്പോൾ എസ് കഴിഞ്ഞിട്ട് എച്ച് വേണ്ട എസ് എ ജെ ഐ എൽ എന്നാണുള്ളത് വേണ്ടത് ആ അത് ഒന്ന് മാറ്റണമായിരുന്നു ഇപ്പോൾ നാളെയാണ് പോകേണ്ടത് ഇന്ന് ഒന്ന് പേരു മാറ്റണം ആ എൻ്റെ ഐ ഡിയിലൊക്കെ സജിൽ എന്നാണുള്ളത് എസ് എ ജെ ഐ എല്ലെന്നാണുള്ളത് ആ ഓക്കെ

ശരിയെന്നാൽ ഓക്കെ